ഹലോ ഹൽ ഹലോ ഞാൻ വിളിച് ഹലോ ഹ് ഹലോ ഞാൻ വിളിച്ചതേ പിന്നെ ഹലോ കേൾക്കുന്നില്ലേ ആ ഓക്കെ ഞാൻ വിളിച്ചതേ എനിക്ക് എന്താണ് എനിക്കും ഫാമിലിക്കും കൂടെ എന്താണൊരു വൺ വീക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ വയനാട് ജില്ലയിൽ സ്ഥലങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ നമ്മളൊരു ഫോർ മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക മാം ആ രണ്ട് രണ്ട് ചിൽഡ്രൻ ഉണ്ടാവും അതെ അതെ അതെ അതെ വൺ വീക്ക് അതെ അതെ അതെ അങ്ങനത്തെ അങ്ങനെ അങ്ങനെയൊരു അങ്ങനെയൊരു കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതും കുറച്ച് പക്ഷേ ചിൽഡ്രൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ നോക്കി വരുന്നത് ഓക്കെ വാട്ടർഫോൾസ് എവിടെയൊക്കെയാണ് വരുന്നത് ആ ഓക്കെ ഓക്കെ അവിടേക്കൊന്നും ഇപ്പം ട്രാവൽ ചെയ്യാൻ കഴിയില്ല

ആ ഓക്കെ ഓക്കെ ഇപ്പം അവിടെ മഴയാണോ ഇപ്പം അവിടെ എങ്ങനെയാണ് മഴയാണോ വയനാട് ജില്ലയിൽ ഓക്കെ ഫൈൻ ഓക്കെ ഓക്കെ ഫൈൻ ഓ ഓക്കെ ഫൈൻ ആ ഞാൻ നെക്സ്റ്റ് വീ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് തൊട്ടാണ് വിചാരിക്കുന്നത് പ്രോബബ്ലി ഡേറ്റ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടില്ല നമ്മൾ അത് അറിയിച്ചാൽ മതിയല്ലേ ഓക്കെ താങ്ക് യൂ ഐ വിൽ കോൾ യൂ ലേറ്റർ ഓക്കെ